ഞങ്ങളുടെ വായനാട്ടിലാണ് കൂടുതലായിട്ടും പ്രകൃതിസൗന്ദര്യത്തിന് സവിശേഷത നേടിയ ഇഷ്ടംപോലെ പ്രദേശങ്ങൾ ഉള്ളത് വയനാട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടും നദികളും മലകളും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് വയനാട് തന്നെ ഒരു സവിശേഷത സവിശേഷത നിറഞ്ഞ ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം തടാകങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പൂക്കോട് ലേയ്ക്ക് അങ്ങനെ പല തരം തടാകങ്ങളുണ്ട് അവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും വിനോദ സഞ്ചാരത്തിന് പറ്റിയ ഒരു സ്ഥലവും നല്ലൊരു ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണ് നല്ല തണുപ്പ് കാര്യങ്ങൾ മലകൾ അതായാത് നല്ല എന്താപറയാ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്തിന് അ നടുവിലുള്ളൊരു തടാകമാണ് നമ്മുടെ പൂക്കോട് ലേക്ക്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നദികൾ പല തരമുണ്ട് കബനി നദി അങ്ങനെ പല തരം നദികൾ നമ്മുടെ വയനാട്ടിൽ ഉണ്ട് ഇപ്പോൾ മലകളെന്ന് പറഞ്ഞാൽ ബ്രഹ്മഗിരി മല അതിന്നപ്പുറേ കർണാടക സ്റ്റേറ്റ് അങ്ങനെ പല തരം മാ മലകളും ഉണ്ട് ഇതിലൊക്കെ നമ്മൾ പക്ഷിപാതാളം അതിൽ കയറണമെങ്കിൽ തന്നെ ഒരു മലകൾ കയറീട്ട് വേണം അവിടെ എത്താൻ വേണ്ടീട്ട് അപ്പോൾ പല തരം മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം പിന്നെ അങ്ങനെ പല തരം വെള്ളച്ചാട്ടം ഉണ്ട് മെയിൻ ആയിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ളത് മീൻമുട്ടി രണ്ട് മൂന്ന് മീൻമുട്ടികൾ ഉണ്ട് ഇവിടെ ഇപ്പം നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് മേ വയനാട്ടിൽ ഉള്ളതും വെള്ളച്ചാട്ടങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ വയലുകൾ വയലുകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും കൃഷിയിലേക്ക് ആൾക്കാർ ഇറങ്ങി തുടങ്ങി ഇതിന് മുന്നേ വാഴ കൃഷി അങ്ങനെ പലതിലേക്ക് ആയിരുന്നു ഇറങ്ങിയത് ഇപ്പോൾ വയൽ കൃഷിയിലുകളും വയലിലുള്ള നെൽക്കൃഷികളും പല തരം കൃഷികളൊക്കെ കാണാൻ കാണാനായിട്ടും എല്ലാം ചെയ്യാനായിട്ടും ഉണ്ട് പിന്നേന്ന് പറഞ്ഞാൽ കാ കാടാണ് മെയിൻ ആയിട്ടുള്ളത് വയനാട്ടിൽ കൂടുതലായിട്ടും കാടാണ് ഉള്ളത് അപ്പം കാട്ടിലുള്ള ജീവികളും ഇതെല്ലാം ഉള്ളത് കൊണ്ടൊരു ഭംഗിയാണ് വയനാടിനെ കാണാൻ തന്നെ അപ്പം ആൾകാരുടെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടവും ഈ കാടുകളും ഈ സൗന്ദര്യമാർന്ന ഏ പ്രകൃതി സൗന്ദര്യത്തിന് ചേർന്ന ഒരു നാടായിട്ടാണ് വയനാട് ഉള്ളത്